ഓട്ടം വേണമെങ്കിൽ നമുക്ക് ഒരു ഹോബിയായിട്ടും എടുക്കാം തൊഴിലായിട്ടും എടുക്കാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് അതായത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ സ്കൂളില് ഇങ്ങനെ പഠിപ്പിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊരു തൊഴിലായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊഴിൽ പരമല്ലാത്ത രീതിയില് വേണേൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭൂരിഭാഗം ആൾക്കാരും ഇത് ഒരു ഹോബി ആയിട്ടാണ് എടുക്കാറ് ഓട്ടം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അപ്പം അത് എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് മെയിനായിട്ട് ഓടുമ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ശാരീരികക്ഷമതയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇണ്ടാകും നമ്മുടെ കാലും കൈകളും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു മസിൽസും കാര്യങ്ങളൊക്കെ വരും നമുക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഓടുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ തൊഴിലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒളിമ്പിക്സില് അങ്ങനത്തെ നമ്മളിപ്പോൾ നല്ല രീതിയില് ഓടുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നമക്ക് സ്കൂൾ കാലം തൊട്ട് നമുക്ക് ഓട്ടം കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കി നമ്മള് സ്റ്റേറ്റ് ഇപ്പം സംസ്ഥാന തലത്തിലൊക്കെ വന്നു കഴിഞ്ഞാല് മെയിനായിട്ട് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജില്ലാ തലത്തിലൊക്കേണ് ആദ്യായിട്ട് പിന്നെ കയറാം അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഓട്ടം ഇതൊക്കെ ആയിക്കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ ഒളിമ്പിക്സിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പങ്കെടുക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മള് മെയിനായിട്ട് എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ ചുവട് വയ്ക്കാം